ഹൽ ഹലോ ഇതാരാണ് ആ പെയിൻ്റർ ആണ്

നിങ്ങൾ ഏത് കളർ പെയിൻറ് അടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്

ആ ശരി അത് നമ്മുടെ ഇഷ്ടമാണ്

ആ ആ ആ

അല്ല സേ സെയിം ആ പെയിൻറ് ഞങ്ങൾ കൊണ്ടുവരും നിങ്ങൾ മതിലിന് പെയിൻറ് അടിക്കുന്നുണ്ടോ വില കൂടിയത് വേണോ അതോ വില കുറവുള്ളത് ഒരു മീഡിയം അതിന് കുറച്ച് വില കൂടും

ആ ആയിക്കോട്ടെ ആ